ഹലോ ഞാൻ നിങ്ങളുടെ അപ്പ് വഴി ഒരു പ്രൊഡക്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അത് ആവശ്യമില്ലാത്തതിനെ തുടർന്ന് ഞാൻ അപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആതിന്റെ റീഫണ്ട് ഒന്നുകിൽ നിങ്ങളുടെ വാലെറ്റ് വഴി ഇതിൽ തന്നെ ആപ്പ് വഴി ചെയ്ത് താരാനോ അല്ലെങ്കിൽ എനിക്ക് ഗൂഗിൾ പേയോ അങ്ങനെ എന്തെങ്കിലും എന്റെ പേർസണൽ ആയിട്ടുള്ള അക്കൌണ്ടിലേക്ക് നിങ്ങൾക്ക് സെൻറ് ചെയ്യാനോ കഴിയുമോ അല്ല പ്രോഡക്ട് ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് രണ്ടു ദിവസമായിരുന്നു അപ്പോൾ റീഫണ്ട് ഇതുവരെ കയറിയിട്ടില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചു നോക്കിയത് കാരണം അപ്പോൾ റീഫണ്ട് കയറാൻ വേണ്ടിയിട്ട് കാരണം പേയ്മെന്റ് എനിക്ക് ഒന്നുകിൽ നിങ്ങളുടെ ആപ്പിൽ തന്നെ വാലെറ്റ് വഴി അങ്ങനെ എന്തെങ്കിലും ചെയ്ത് തരിക അല്ലെങ്കിൽ എനിക്ക് പേർസണൽ ആയിട്ട് ഗൂഗിൾ പേയോ ഫോൺപേയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് തരികയോ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത് നിങ്ങൾ ഒന്നും ഒരു ഇതും ഇതിൽനിന്ന് വന്നിട്ടില്ല മീൻസ് എനിക്ക് ഇതിന്റെ ഒരു റീഫണ്ടിനുള്ളൊരു പ്രോസസ്സോ ഒന്നും ഇതുവരെ കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഞാൻ റീഫണ്ട് ചെയ്ത് എന്താ പറയുക ഞാൻ ഇത് ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾ റീഫണ്ട് ചെയ്യുന്നില്ല സോ അതാണ് ഞാൻ ഇപ്പോൾ വിളിച്ചു നോക്കിയത് ആ ഇതിപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്ത സാധനത്തിന്റെ ഇതാണല്ലോ ഞാൻ ചോദിച്ചത് അപ്പോൾ റീഫണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയെന്ന് വച്ചാൽ അതുപോലെ ചെയ്ത് തരേണ്ടതാണ് ഓക്കെ നിങ്ങൾ ഒന്നുകിൽ എനിക്ക് ഇതിന്റെ ഇത് ഏതായാലും ചെയ്ത് തന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ എന്റെ പേർസണൽ ആയിട്ടുള്ള ഗൂഗിൾ പേയ് നമ്പറിലേക്കോ ഫോൺപേയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് തന്നാലും മതി ആ ഓക്കെ ഓക്കെ നിങ്ങൾ ഗൂഗിൾ പേയോ എന്തെ എന്തെന്ന് വച്ചാൽ നിങ്ങളുടെ സൌകര്യം പോലെ എനിക്ക് ചെയ്ത് തന്നാൽ മതി ഓക്കെ എന്നാൽ ഈ നമ്പറിൽത്തന്നെ എനിക്ക് ചെയ്ത് തന്നാൽ മതി ഓക്കെ താങ്ക് യു